ഇപ്പോൾ നമ്മുടെ പ്രദേശമെന്ന് പറഞ്ഞ് കഴിഞ്ഞാല് സ്റ്റേഡിയങ്ങള് ഇഷ്ടംപോലെ ഉണ്ട് കാരണം എന്താണെന്ന് വച്ച് കഴിഞ്ഞാല് ചെറിയ സ്റ്റേഡിയങ്ങളെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാല് വല്യ രീതിയിലുള്ള സ്റ്റേഡിയവും കാര്യങ്ങളൊന്നും അല്ല കാരണം എന്താണെന്ന് വച്ച് കഴിഞ്ഞാല് നമുക്കിവിടെ ടറഫും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉള്ളത് കൊണ്ട് വലിയ രീതിയിലുള്ള സ്റ്റേഡിയം കാര്യങ്ങളൊക്കെയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള കായിക കളികളൊക്കെയെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാല് നമുക്ക് ഇവിടെയെന്ന് പറഞ്ഞ് കഴിഞ്ഞാല് നമുക്ക് കലൂര് അതായത് എറണാകുളം അവടെയാണ് കൂടുതലായിട്ടും വലിയൊരു സ്റ്റേഡിയം കാര്യങ്ങളൊക്കെ ഉള്ളത് പിന്നെ വയനാട് നീല നീലഗിരിയെന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേഡിയം കാര്യങ്ങളൊക്കെയുണ്ട് അവിടെയൊക്കെയാണ് മെയിനായിട്ട് സ്റ്റേഡിയവും കാര്യങ്ങളൊക്കെ ഉള്ളത് ഇപ്പോൾ നമുക്ക് കലൂരെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ളൊരു വലിയൊരു ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെയാണ് അവിടെയാണിപ്പോൾ ഐ എസ് എല്ലും കാര്യങ്ങളൊക്കെ നടക്കുന്നത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളികളും അങ്ങനെ പല രീതിയിലുള്ള ആൾക്കാരുടെ കളികളൊക്കെയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അവിടെയാണ് കൂടുതലായിട്ടും ടൂർണ്ണമെന്റും കാര്യങ്ങളൊക്കെയായിട്ട് നടക്കുന്നത് ഇപ്പോൾ അവിടെ ഇഷ്ടം പോലെ കളികളും കാര്യങ്ങളും ഒക്കെ നടക്കാറുണ്ട് ഈ അടുത്ത് ഇന്ത്യേൻ്റെ ഒരു കളിയെന്ന് പറഞ്ഞ് കഴിഞ്ഞാല് നമ്മുടെ തിരുവന്തപുരത്തെ വലിയൊരു സ്റ്റേഡിയത്തിലാണ് ഇത് നടക്കണ്ടത് പക്ഷെ അവിടെ മഴ മൂലം കളി നടത്താൻ വേണ്ടീട്ട് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു മൂന്ന് മൂന്നെണ്ണമാണ് നമുക്ക് മെയ്നായിട്ടുള്ള സ്റ്റേഡിയവും കാര്യങ്ങളും അത് ഫൂട്ബോൾ ഒരു ഫൂട്ബോൾ ഗ്രൗണ്ടും രണ്ട് ക്രിക്കറ്റ് സ്റ്റേഡിയവും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെ ഉള്ളത് പിന്നെ അല്ലറ ചില്ലറ ചെറിയ ചെറിയ സ്റ്റേഡിയങ്ങളും സ്റ്റേഡിയങ്ങളും കാര്യങ്ങളൊക്കെയുണ്ടെങ്കിലും പക്ഷെ നമ്മളതൊന്നും വല്യ ഇതാക്കാറില്ല എന്താ പറയുക വലിയ സൗകര്യങ്ങള് ഒക്കെ കുറവാണ് ബാക്കിയുള്ളതിലൊക്കെ നല്ല രീതിയിലുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെയുണ്ട്